ഹലോ ഡോക്ടർ അല്ലേ ആ എനിക്ക് പനിയും ജലദോഷവും തലവേദനയുമാണ് അതുകൊണ്ട് വിളിച്ചതാണ് മൂന്നാല് ദിവസമായി ഇല്ല കാണിച്ചിട്ടില്ല വീട്ടിലുള്ള പാരസെറ്റാമോൾ തലവേദനേൻ്റെ ഗുളികയും ഒക്കെ കുടിച്ചു ആ മഴ ഇന്നലെ നനഞ്ഞിക്കേനു ആ അമ്മയ്ക്കും അച്ഛനുമുണ്ട്

ആ തൊണ്ടവേദനയും ഉണ്ട് ആ

ഗുളിക ഇനി രണ്ടുമൂന്നെണ്ണം ഉണ്ട്

ആ പിന്നെ കോറോണേൻ്റെ ടെസ്റ്റ് ചെയ്യണോ അവർക്ക് വായ് കയ്ക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞത് ടേസ്റ്റ് വ്യത്യാസം

ആ സ്മെൽ മണക്കാൻ പറ്റുന്നില്ല

ആ എത്ര മണിക്കാണ് സമയം

ആ എന്നാൽ ശരി